ഞാൻ വരക്ക് വരക്കുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ്ക്കുഞ്ഞ് സാധനങ്ങളൊക്കെയാണെങ്കിൽ ഒരു കുറഞ്ഞതൊരു അഞ്ച് പത്ത് മിനിറ്റിന്റെ അകത്ത് വരച്ച് തീർക്കാൻ പറ്റുന്ന കുഞ്ഞ് ഷേപ്പുകളും അങ്ങനത്തെ ജോമട്രിക് ഫിഗേസാണെങ്കിലിപ്പം കുറെ പൂവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണെങ്കിൽ ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റിന്റെ അകത്ത് ഞാൻ വരച്ച് തീർക്കും പക്ഷേ ഒരു പോട്രേറ്റ് പോലത്തെ സംഭവങ്ങളാണെങ്കിലും സീനറീസാണെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ രണ്ട് രണ്ട് മൂന്ന് നാല് ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ഒൻപത് ഒൻപത് ദിവസം പത്ത് ദിവസമൊക്കെ എടുത്തിട്ടുള്ള ഡ്രോയിങ്സ് പെയിൻറ്റിങ്ഗ്സുമുണ്ട് അപ്പോൾ ഏറ്റവും കുറവ് ഒരു അഞ്ച് മിനിറ്റും ഏറ്റവും കൂടുതൽ ഒരു ഒൻപത് പത്ത് ദിവസമായിരിക്കും പിന്നെ ഓരോ ഓരോ ക ഓരോ വരയ്ക്കുന്ന ഇതിനുമനുസരിച്ചിരിക്കും മാറി മാറി അത് എങ്ങനെയാണെന്നുള്ളതിന് അനുസരിച്ചിരിക്കും മാറി മാറി എത്ര സമയം എടുക്കുന്നൂന്നുള്ളത്